ഹലോ പെറ്റ് ഷോപ്പാണോ ആ നമുക്കൊരു പ പപ്പീനെ ഗ്രൂമെയ്യാനിണ്ടായിരുന്നു അപ്പം നമ്മളെപ്പോഴാണ് കൊണ്ടരണ്ടേ അവിടെ തിരക്കും കാര്യങ്ങളും എന്തെങ്കിലും ഉണ്ടോ അറിയാൻ വേണ്ടിയായിരുന്നു ഇല്ല അപ്പോൾ നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല രോമൊക്കെയുള്ളൊരു പപ്പിയാണ് അപ്പം അതിന് നല്ലോണം കട്ടൊക്കെ ചെയ്ത് നല്ല കുളിപ്പിക്കണം പിന്നെ അതിൻ്റെ ചെവീലൊള്ള ചെളി അങ്ങനുള്ളതൊക്കെ എടുത്ത് കളയണം പിന്നെ അതിൻ്റെ ടീത്തൊക്കെ ഒന്ന് ബ്രഷെയ്യണം അങ്ങനെ എല്ലാ കാര്യോം ചെയ്യണം

ആണല്ലേ ആ ആ പട്ടി പൊമറേനിയനാണ് എത്രയാണ് റേറ്റൊക്കെ വരുന്നത് ആ ഓക്കെ

അപ്പം പിന്നെ നമുക്ക് റേറ്റൊക്കെ അറിയുവാണെങ്കിൽ ഏകദേശം എത്ര റേറ്റാവൂന്ന് പറയാൻ പറ്റുമോ ആണോ സ്റ്റാർട്ടിങ്ങ് എത്രയാണ് നിങ്ങളുടെ ആണല്ലേ അതെ അതെ അതെ അല്ലാ അവന് ഒരു വയസ്സായി

ഏയ് അല്ല അല്ല അല്ല അവൻ പാവമാണ് ആ എല്ലാ നല്ല ഫ്രണ്ട്ലി ആണ് പെട്ടെന്ന് ആ പെട്ടെന്ന് ഫ്രണ്ട്ലി ആവുന്നയ ഞങ്ങളിവിടെ കുളിപ്പിക്കാറൊക്കെയിണ്ട് പക്ഷേ ഒന്നൂടെ നല്ലോണം ഒന്ന് നല്ല വൃത്തിയായിട്ട് എല്ലാ അതായത് ചെവിയും ചെവിയൊന്നും നമുക്കൊന്നും ചെയ്തിട്ടില്ല ചെവിയിൽ വെള്ളൊന്നും കയ്റാൻ പറ്റില്ലല്ലോ ആ നെയിലെക്കെ കട്ടെയ്യണം എല്ലാം ചെയ്യണം എല്ലാം ചെയ്യണോട്ടോ പ റേറ്റ് കുഴപ്പോല അപ്പം നമ്മൾ കൊണ്ടരട്ടെ എന്നാൽ എന്നാൽ കൊണ്ടരട്ടെ നമ്മൾ ആ ഓക്കെ എന്നാൽ എന്നാൽ നമ്മളിപ്പം വരാട്ടോ